നമ്മുടെ പാലക്കാട് ജില്ലയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ കാണാൻ പറ്റിയ ഇപ്പോൾ നമ്മുടെ മലമ്പുഴ കവ നെല്ലിയാമ്പതി ധോണി വെള്ളച്ചാട്ടം കൊല്ലംകോട് പിന്നേ സീതാർകുണ്ട് അട്ടപ്പാടി വനമേഖല നോക്കുകയാണെങ്കിൽ അങ്ങനെ സൈലെൻറ്റ് വാലി പറമ്പിക്കുളം അങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നമുക്ക് കാണാനുണ്ട് ഇത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇപ്പം അല്ലാണ്ട് നമുക്ക് നോക്കുകയാണ് എന്ന് പറയുമ്പോൾ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ എന്താ പറയുക സ്മാരകങ്ങളുണ്ട് പിന്നെ പൂരങ്ങൾ ഉത്സവങ്ങൾ അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ പിന്നെ നമുക്ക് സിനിമ മേഖല അല്ലെങ്കള്ള് തിയേറ്റർ നോക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ന്യൂ ആരോമയുണ്ട് പിന്നെ ആവിഷ്കാറുണ്ട് കെ ആർ വിയുണ്ട് പിന്നെ എന്താ പറയുക അങ്ങനെ പല രീതിയിലുള്ള തീയേറ്ററുകൾ എല്ലാം നല്ല എ സിയും നോൺ എ സിയും ആയിട്ടുള്ള നല്ല പുഷ് ബേക്ക് സീറ്റും നല്ല അടിപൊളി ഡോൾബി അറ്റ്മോസ് സൗണ്ടും കാര്യങ്ങളൊക്കെയുള്ള നല്ല തിയേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പ്രദേശത്ത് നോക്കുകയാണ് എന്ന് പറയുമ്പോൾ പാർക്കുകൾ ഇപ്പോൾ നമ്മുടെ മൈതാനം പോലുള്ള നമ്മുടെ പാലക്കാട് ജില്ലയിൽ കോട്ട മൈതാനം പിന്നെ വാടിക അതുപോലുള്ള അപ്പോൾ കളിക്കാൻ ആണെങ്കിലും സ് നമുക്ക് വൈകുന്നേരങ്ങളിൽ പോയിട്ട് നമുക്ക് കുറച്ച് നേരം ഇരിക്കാനാണെങ്കിലും അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെയാണ് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഉള്ളത് അത് അതായത് ടൗൺ ഏരിയയാണ് പിന്നെ നമ്മുടെ വിവിധമായ സ്ഥലങ്ങളിൽ അതേ ഗ്രാമ പ്രദേശങ്ങളാകുമ്പോൾ എല്ലാ ഗ്രാമ പ്രദേശങ്ങളിൽ മിക്ക പ്രദേശങ്ങളും കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും നടക്കാനാണെങ്കിലും അങ്ങനെയുള്ള ഒന്നല്ലെങ്കിൽ സ്കൂളുകളുടേത് ആയിട്ടുള്ള പാർക്കുകൾ അല്ലെങ്കിൽ ഗ്രൗണ്ടുകളും കാര്യങ്ങളും ഉണ്ടാകും അല്ലെങ്കിൽ പഞ്ചായത്ത് അടിസ്ഥാനങ്ങളിൽ ഗ്രൗണ്ടുകളും കാര്യങ്ങളും ഇപ്പോൾ കാപ്പിക്കാട് പോലുള്ള സ്ഥ സ്ഥലങ്ങൾ ഇപ്പം അവിടെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയുണ്ട് അതുപോലെ ഓരോ പ്രദേശത്തും വിവിധ തരത്തിലുള്ള ഇപ്പം കളിക്കാനാണെങ്കിലും നടക്കാനാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ആളുകൾക്ക് കൃത്യമായിട്ട് പോയി അവരുടെ എന്താണ് എക്സർസൈസ് ചെയ്യണങ്കിൽ അങ്ങനെ കളിക്കുകയാണെങ്കിൽ കളിക്കാം അവർക്ക് ജസ്റ്റ് നടക്കാനാണെങ്കിൽ അങ്ങനെ യോഗ ചെയ്യാം അങ്ങനെ പല രീതിയിൽ അവരുടേതായ മാനസികവും ശാരീരികവുമായ വളർച്ചക്ക് ഗുണങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് ആ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്നെ ഇതൊക്കെ പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ ഇപ്പം പാലക്കാട് ജില്ലയിൽ സേവ ഭാരത്തിൻ്റെ ഒരു ഡി എന്താ പറയുക ഒരു ആശുപത്രി വന്നുണ്ട് ആശുപത്രി എന്ന് അല്ല നമുക്ക് ഒരു ചെറിയ ഒരു റെസ്റ്റോറേഷൻ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കൂടുതലും മദ്യാസക്തിയിലുള്ള ആൾക്കാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അതുപോലെ എന്ത് ആസക്തിയാണെങ്കിലും ഇപ്പോൾ പുകവലിയാണെങ്കിലും അങ്ങനത്തെ അതിൽ നിന്നൊക്കെ ഒഴിവാക്കി അവരെ പൂർണ്ണമായിട്ടും നല്ല രീതിക്ക് തിരിച്ച് കൊണ്ടു വരാനുള്ള സെൻ്ററുകൾ അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ പല രീതിക്കും കൗൺസിലിംഗ് സെൻ്ററുകൾ അങ്ങനെ നമ്മുടെ പാലക്കാട് ജില്ലക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു ഇത് സാഹചര്യം ഇപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ നല്ലൊരു നമുക്ക് കാണാൻ പറ്റും